എച്ച് ഫോട്ടോഗ്രാഫിയില് പങ്കെടുക്കാന് നല്ല ആഗ്രഹാണ് ഞാനീ നാട്ടാർക്കെല്ലാർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കലക്ക്ണ്ട് അപ്പോള് ഈ നാട്ടുകാര് മൊത്തം പറയും ഇജ്ജ് ഫോട്ടോഗ്രാഫിയില് ഫോട്ടോഗ്രാഫിക്ക് ചേർന്ന്ക്കുവാന്ന് അതിച്ചോരവസരം കിട്ടിയാല് ഞാന് ഉറപ്പായും ചേരും കാരണമെന്ന് വെച്ചാല് ഈ നാട്ടുകാർക്ക് മൊത്തം ഞാനാണ് ഫോട്ടോ എടുക്കല് നാട്ടുകാരെല്ലാവരും ജ്ജ് പൊളിയാണ് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല പൊളിയാണ് എന്നൊക്കെ പറയും അതു കൊണ്ട് ഇച്ച് നല്ല പങ്കെടുക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഒരവസരെങ്ങാനും വീണുകിട്ടിയാല് ഞാന് അപ്പോള്ത്തന്നെ ഐമ്മെ അള്ളിപ്പിടിച്ച് കയറും ഉറപ്പാണ് കയറും ഞാനെൻ്റെ താത്താക്ക് കുറേ ഫോട്ടോ എടുത്ത് കൊടുത്ത്ക്കണ് ഒരു ദിവസം തന്നെ അഞ്ചാറ് ഏഴ് ഫോട്ടോകള് ഞാനെടുത്ത് കൊടുത്തെക്കണ് അതുകൊണ്ടിച്ച് നല്ല അറിയാം ഫോട്ടോ എടുക്കാൻ നന്നായിട്ടറിയാം അവള് കുറേ പോസൊക്കെ ചെയ്യുന്നുണ്ട് ആ കിടന്നാണ്ടും ഇരുന്നാണ്ടും ചെരിഞ്ഞാണ്ടും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് രാവിലെ മുതല് വൈകുന്നേരം വരെ ഞാന് ഫോട്ടോ എടുക്കും അങ്ങനക്കേണ് അതിന് നിന്നുതരാനെൻ്റെ താത്തയുണ്ട് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അവള് പല ഫോട്ടോകളും അവൾക്കിങ്ങനെ ഫോട്ടോ എടുക്കാൻ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഇച്ചും ഫോട്ടോ എടുക്കാന് നല്ല ഇഷ്ടമായതുകൊണ്ട് ഒപ്പങ്ങിട്ട് ഫോട്ടോ എടുക്കും എപ്പോഴും അതുകൊണ്ട് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയില് ഒരിത് കിട്ടിയാല് ഞാന് ഉറപ്പാണ് അതില് കയറും ച്ചല്ലിഷ്ടാണ് നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ട് വീട്ടുകാരെല്ലാവരും പറയുന്നുണ്ട് ഫോട്ടോ അതിന് ചേർന്നിക്കോ ചേർന്നിക്കോന്ന് അതോണ്ടെങ്ങാനും ഒരവസരം കിട്ടിയാല് ഞാന് ഇപ്പോള്ത്തന്നെ അതില് അള്ളിപ്പിടിച്ച് ഉറപ്പാണ് കയറും അതുറപ്പാണ് പിന്നെ ഫോട്ടോ ഇവിടുന്നുതന്നെ കുറേ എടുക്കുന്നതുകൊണ്ട് എച്ച് നന്നായിട്ടറിയാമല്ലോ ഫോട്ടോ എടുക്കാന് അതൊക്കെ എൻ്റെ ഫോട്ടോഗ്രാഫിന്റിത്